ഹലോ ഞാൻ കുറച്ച് ദൂരത്തുനിന്നാണ് വിളിക്കുന്നത് ഇത് മെഡിക്കൽ ഫീൽഡിൻ്റെ ആ ഒരു ഇതല്ലേ ആ അപ്പം ഞാൻ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു കസിനിന് വേണ്ടിയായിരുന്നു ആ എനിക്കൊരു ഗുഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അറിയാനായിരുന്നു ക്യാൻസർ ആണ് ആണോ ആ ആ പ്രൈവറ്റ് മതി ആണല്ലേ അപ്പം വേറെയെവിടെയെങ്കിലും തിരുവനന്തപുരത്ത് ഏതാണ് ഉള്ളത് ആണോ ആ ഓക്കെ എന്നാൽ നമ്മൾ ഒരു വ്യാഴാഴ്ച വന്നാൽ റെഡി ആവുമോ അവിടെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ റേറ്റ് ഒന്ന് വാട്ട്സാപ്പ് ചെയ്യുമോ പൈസ ഒക്കെ അതെ അല്ലേ ഓക്കെ ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയല്ലേ ആ ഓക്കെ ഇത് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ചികിൽസ മാറുന്നതേ ഉള്ളൂ ആ ഉണ്ട് ഉണ്ട് ആണോ ആ ഓക്കേ ഓക്കേ അപ്പം എന്നാൽ നമ്മൾ വ്യാഴാഴ്ച വരാൻ ശ്രമിക്കാം ആ ഓക്കെ ഓക്കെ എന്നാൽ ഡേറ്റ് നിങ്ങൾ ആ എന്നാൽ ശരി